ഞാന് ഫാനാണ് വാങ്ങിയത് മ് ഫാന് നല്ല പൈസ കൊടുത്തു ആറായിരത്തി സംതിങ്ങ് രൂപേൻ്റെ മേലെയായി ഫാനിന് കൊണ്ടുവന്നിട്ട് നല്ല ഫാനാണ് നമക്ക് ഗ്യാരൻറ്റി വൺ ഇയർ ഗ്യാരൻറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പത്ത് ദിവസം പോലും ആയിട്ടില്ല കംപ്ലൈൻറ്റായി എന്താ പറ്റിയേന്നറിയില്ല എന്തോ വയറ് ക്രാഷ് ഔട്ട് ആവുന്നെന്ന് പറഞ്ഞു നമ്മള് ഇതിന് മുൻപ് ഒരിത് ഇട്ടതാണ് ഇതിന് മുമ്പൊരു ഫാൻ ഉണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ലാത്തതാണ് ഈ ഫാൻ വെച്ചപ്പം പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലൈൻറ്റായി പോവാണ് ഒന്നിനും കൊള്ളില്ല ഭയങ്കര പൈസയായി നമുക്ക് ഫാ ഫാനാകുമ്പം പൈസയ്ക്ക് വേണ്ട അത്ര പൈസയില്ലാത്ത ഫാനായിരുന്നു ഇതിന് മുൻപുണ്ടായിരുന്നത് ഇത് പക്ഷെ എനിക്ക് കൊറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് വാങ്ങിയതാണ് പക്ഷെ കംപ്ലൈൻറ്റാവാണ് ഒന്നിനും കൊള്ളില്ല ഒട്ടും എനിക്കിഷ്ടമായില്ല അത്രയും മോശം പ്രൊഡക്ടായിരുന്നു അത്